നൂറ് ശതമാനം വിദ്യാഭ്യാസം സാക്ഷരത നേടിയ ജില്ലയാണ് കോട്ടയം ജില്ലയെങ്കിലും കോട്ടയം ജില്ലയിലെ സ്ത്രീകൾ വളരേയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് തന്നെയല്ല ഈ രാത്രി സഞ്ചാരങ്ങൾക്കൊക്കെ അവർക്ക് ബസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ വണ്ടി സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും പത്തുമണി കഴിഞ്ഞാൽത്തന്നെ റോഡിലൊന്നും വണ്ടികളധികം ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് തിരിച്ചു പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണെങ്കിൽ ഇഷ്ടം പോലെ പെൺകുട്ടികൾക്കുള്ള സ്കൂളുകൾ കോട്ടയം ജില്ലയിലുണ്ട് ഒരു ബേക്കർ മെമ്മോറിയല് മൗണ്ട് കാർമല് പോലെയുള്ള സ്കൂളുകളെല്ലാം പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് തന്നെയല്ലാ അവർ ഉന്നത വിദ്യാഭ്യാസവും നൽകുന്നുണ്ട് പെൺകുട്ടികൾക്ക് അതുപോലെ തന്നെ സർക്കാർ വളരെയധികം പദ്ധതികൾ സ്ത്രീകളുടെ ക്ഷേമത്തിനും അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസുകാർ അതുപോലെ പിങ്ക് പോലീസ് ഇതൊക്കെ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് തന്നെയല്ല ഇതൊക്കെയാണെങ്കിലും വിദ്യാഭ്യാസം സംരക്ഷണ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സ്ത്രീകൾക്കെതിരെ വളരെയധികം ചൂഷണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്